എന്നെ സംബന്ധിച്ച് പാട്ടുകൾ പാടുമ്പോൾ കൂടുതലും ഞാൻ മെലഡി സോങ്സാണ് കൂടുതലും സെലെക്റ്റ് ചെയ്യാറുള്ളത് മെലഡി പാടുമ്പോഴാണ് എനിക്ക് കൂടുതലും സ്റ്റാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളത് കൂടുതലും ഞാൻ കേൾക്കുന്നതും മെലഡി സോങ്സ് ആണ് പക്ഷെ ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കാറുണ്ട് പാടാറുണ്ട് എന്നാൽ തന്നെയും ജോൺസൺ മാഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മോഹൻ സിതാര സറിൻ്റെയും അങ്ങനെ ഇളയരാജ സാറിൻ്റെയൊക്കെ പഴ സോങ്സ് ആണ് കൂടുതലും ഇഷ്ടം അപ്പോൾ പിന്നെ എൻ്റെ പിച്ചിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പാടാൻ പറ്റിയ പാട്ടുകളാണ് ഞാൻ കൂടുതലും തെരഞ്ഞെടുക്കാറുള്ളത് കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സൊന്നും ചിലപ്പം ഞാൻ പാടിയാൽ വലിയ അത്ര പാട്ടുകാരിയൊന്നുമല്ല ഫാസ്റ്റ് നമ്പേഴ്സൊന്നും പാടിയാൽ ചിലപ്പം ശരിയാവില്ല അതുകൊണ്ട് കൂടുതലും എനിക്ക് മെലഡി സോങ്സ് കൂടുതലും ആയിരിക്കും ഞാൻ കൂടുതലും സെലക്റ്റ് ചെയ്യാറുള്ളത് മെലഡി പാടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം